സ്ത്രീകൾ കായിക ഇനങ്ങളിൽ ഏർപ്പെടുന്നത് ഇന്ന് വളരെ അധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് കായിക ഇനങ്ങളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബോക്സിങ് അതുപോലെ തന്നെ വുഷൂ കാരാട്ടാ എന്നിങ്ങനെയുള്ള മാഷൽ സുകൾ ഒരുപാട് സ്ത്രീകൾ ഇന്ന് പരിശീലനം നേടുന്നുണ്ട് അവരുടെ സ്വയരക്ഷക്കായിട്ട് പിന്നെ അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ബാഡ്മിൻ്റൺ സോഫ്റ്റ് ബോൾ സൈക്കിള് ചവിട്ടുന്നത് അതുപോലെ തന്നെ ഓടുന്നത് പിന്നെ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് നീന്തൽ ഇങ്ങനെ ഒട്ടനേകം കായിക ഇനങ്ങളിൽ ഇന്ന് പെൺകുട്ടികൾ മുന്നോട്ട് വരികയും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ബോക്സിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീയിൽ ഏർപ്പെടുന്ന മേരി ക്കോം മേരി ക്കോം വളരെയധികം നന്നായിട്ട് ബോക്സിങ് ചെയ്യും അതുപോലെ തന്നെ ഷട്ടിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാനിയ മിർസ സാനിയ നെഹ്വാൻ ഇങ്ങനെ ഒരുപാട് ആൾ ആളുകൾ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ പരിശീലനം നേടുകയും അതൊക്കെ അഭ്യസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരാട്ടാ തൈക്കോണ്ടാ പോലുള്ള സ്വയം അഭ്യസിക്കുന്ന കലകൾ മറ്റുള്ളവർക്ക് സെൽഫ് ഡിഫൻസിന് ആയിട്ട് അവർ ഇന്ന് ഒട്ടനേകം പെൺകുട്ടികൾ ഇത് ഇതിൽ നിന്നൊക്കെ പരിശീലനം നേടുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകൾ കായിക ഇനങ്ങളിൽ വളരെ അധികം മുന്നോട്ട് വന്ന് കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ബോക്സിങ് വുഷൂ കരാട്ടേ തൈക്കോണ്ടാ എന്നിങ്ങനെയുള്ള ഇനങ്ങളിലെല്ലാം പരിശീലനം നേടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പരിശീലനം നേടാനായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒപ്പം മത്സര ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പം സ്ത്രീകൾക്കുള്ള കായിക അവസരങ്ങൾ വളരെയധികമാണ് ഇപ്പോൾ എല്ലാവരും ഒരുപാട് മുന്നിലേക്ക് വരുന്നുണ് അവരുടെ തന്നെ വീടുകളിൽ ഒതുങ്ങി കൂടാതെ ഒരുപാട് പേർ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉള്ള സ്വയ രക്ഷക്കായിട്ടുള്ള പലതരം കായികാഭ്യാസങ്ങളും പഠിക്കുന്നുണ്ട് അവർ ഒഴിവ് സമയങ്ങളിലൊക്കെ അപ്പം അതൊക്കെ വളരെ അധികം നല്ലതാണ് ഇപ്പൊ ഞാനും അങ്ങനെ പഠിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അപ്പം എനിക്ക് വളരെ അധികം സന്തോഷമായിരുന്നു ഇതൊക്കെ എന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഉപകാരമുള്ള ചില പ്രവർത്തനങ്ങളായിരുന്നു ഈ പുതിയ കായിക ഇനങ്ങൾ പഠിക്കുക എന്നത് എനിക്ക് പുതിയ കായിക ഇനങ്ങൾ പഠിക്കുക അത് ചെയ്യുക അത് പരിശീലനം നേടുക എന്നതൊക്കെ വളരെയധികം ഇഷ്ടപെടുന്ന ഒരാളാണ് അപ്പോ എന്നേ പോലെ തന്നെ ഇനിയും ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനും ഇങ്ങനെ പരിശീലനം നേടുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെയധികം നല്ല ഒരു കാര്യമാണ്